ഇപ്പൊൾ അതായത് വേനൽകാലത്ത് എന്ന് ഒക്കെ വച്ച് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ പിന്നെ വൈദ്യുതി അതായത് കറണ്ട് പോകല് വളരെ കുറവാണ് കാരണം വേനൽകാലത്ത് അങ്ങനെ ഈ മഴക്കാലത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തായാലും വേനൽ കാലത്ത് ഉണ്ടാവുകയില്ലല്ലൊ അപ്പം ആ സമയത്തൊക്കെ എന്തായാലും ഞങ്ങക്ക് എല്ലാ മണിക്കൂറും തന്നെ വൈദ്യുതി കിട്ടുന്നുണ്ട് അങ്ങനെ പവർ കട്ടുകൾ ഒക്കെ പണ്ടത്തെ ഉപേക്ഷിച്ച് വളരെ കുറവാണ് പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ എന്തെങ്കിലും അതായത് കറണ്ടിൻ്റെ എന്തെങ്കിലും പരിപാടികൾ അങ്ങനെ പണികൾ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കറണ്ട് ഒക്കെ പോകാറുള്ളൂ പിന്നെ എന്തെങ്കിലും പണി നടക്കുന്നുണ്ടെങ്കിൽ പോസ്റ്റ് മാറ്റലും അങ്ങനെയുള്ള ഇതിലൊക്കെ മാത്രമെ പോകാറുള്ളൂ ഇപ്പം മഴ പക്ഷെ മഴകാലത്ത് അങ്ങനെയല്ല അതായത് മരം വീഴലും അങ്ങനത്തെ പരുപാടി ഒക്കെ ആകുമ്പം നമുക്ക് എന്തായാലും എങ്ങനെയായാലും കറണ്ട് പോകും അപ്പൊ എന്താ എന്ന് വെച്ചിട്ടുണ്ടേല് നമുക്ക് ഇപ്പൊ അതായത് ഓൺലൈൻ ജോലി ചെയ്യുന്നവർക്കൊക്കെ അതായത് ലാപ്പിൽ ഒക്കെ ചാർജ് ഇല്ലെങ്കിൽ അത് ഭയങ്കര ഒരു പ്രശ്നമാണ് പിന്നെ അതായത് ഫോണ് ചാർജ് ചെയ്യാൻ ഫോൺ ഒക്കെ ഓഫായി പോകും അപ്പൊൾ നമുക്ക് എന്തെങ്കിലും ഒരു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അർജൻറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങള് അതായത് ആരെങ്കിലുമായിട്ട് വിവര വിനിമയം നടത്തണമെങ്കിൽ ഒക്കെ നമുക്ക് ഫോണ് നിർബന്ധമാണ് അപ്പൊൾ അങ്ങനത്തെ കാര്യത്തിനൊക്കെ നമുക്ക് ഫോൺ പിന്നെ ആ സമയത്തൊക്കെ നമുക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കറണ്ട് ഇല്ലാത്തത്